എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാനായിട്ടതിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് നോക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എപ്പോഴാണ് എങ്ങനെയാണെന്ന് നോക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ പല സ്ഥലങ്ങളിലും പോവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ യാത്രയ്ക്കൊക്കെ പോവാൻ ശ്രമിക്കുമ്പോഴെനിക്ക് ഞാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെയാണെനിക്കേറ്റവും കൂടുതൽ എന്നെ ആ സ്ഥലങ്ങളിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുവാറുള്ളത് എനിക്ക് മിക്കപ്പോഴും എനിക്ക് പോവാൻ കുറേ വനപ്രദേശങ്ങളോടാണെനിക്ക് ഭയങ്കര താൽപ്പര്യം അതായത് കാടും മലയും പോലുള്ള കുഞ്ഞ് കുഞ്ഞ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്നെന്തോ ഭയങ്കര പ്രകൃതിയെ സൗന്ദരിക്കാൻ സൗന്ദര്യമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇപ്പോഴാണ് ഞാനെപ്പോഴും കുറേ വനപ്രദേശങ്ങളിലും ആഴത്തോടെയുള്ള പുഴയും പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പ്രകൃതിയെ മൊത്തത്തിൽ അങ്ങ് ആസ്വദിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ എനിക്കങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ കൂടുതൽ തിരഞ്ഞെടുക്കാറുള്ളത് എപ്പോഴും ഞാൻ കണ്ട് ആസ്വദിക്കാറുള്ളതും അതൊക്കെ തന്നെയാണ് എനിക്ക് ഞങ്ങൾക്ക് നമ്മുടെ മേഘങ്ങളിൽ ആകാശം ആകെ ഒരു മഴയ്ക്ക് മുന്നെ നിറഞ്ഞ് നിൽക്കുന്ന കാർമേഘം കാണുമ്പോഴും കുഞ്ഞ് കുഞ്ഞ് ചാറ്റൽ മഴ കാണുമ്പോഴും എല്ലാം ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഇത് കണക്കുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാൻ നോക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ എനിക്ക് കുഞ്ഞിപ്പുഴയും ആ പുഴയരികിൽ പോയിരുന്ന് കാലിട്ട് കളിക്കാനും ആ പുഴയുടെ മുകളിൽ ആ അവിടെയായിട്ട് കുറേ മരം ചാഞ്ഞ് നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ മുകളിലൂടെ മഴവെള്ളത്തുള്ളികൾ വന്ന് വീഴുന്നതും ഇതൊക്കെയാണ് ഞാനൊരുപാട് കാണാനിഷ്ടപ്പെടുന്ന കുറച്ച് കാഴ്ചകൾ എനിക്കിങ്ങനെയുള്ള കുറച്ച് എപ്പോഴും നല്ലൊരു നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് ഞാനൊരു എപ്പോഴും നല്ലോണം ചൂസ് ചെയ്യാറുണ്ട് എനിക്കങ്ങനെ ഒരു നല്ല നല്ല അന്തരീക്ഷമായിരിക്കണം വെയിലുകൊണ്ട് നമുക്ക് ചൂടാൽ ഭയങ്കര ഇതാക്കരുത് എന്നാൽ ഭയങ്കര ഓവർ തണുപ്പും ആവല് ഒരു മീഡിയം ക്ലൈമറ്റായിരിക്കണം എപ്പോഴും നല്ലൊരു എന്നാൽ കുറച്ച് കൂടി തണുപ്പാണ് ഞാൻ പ്രിഫറ് ചെയ്യാറുള്ളത് ബിക്കോസ് ഓഫ് തണുപ്പ് സമയമാകുമ്പോഴേക്ക് ഭയങ്കര നമുക്കൊരു സന്തോഷമാണല്ലോ അതായത് ആ തണുപ്പ് സമയത്ത് നമുക്കൊരുപാട് അവിടെയൊക്കെ ആസ്വദിക്കാനും വെയിൽ കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനെ തോന്നില്ല ആ എന്നാൽ മഴപെയ്യുന്നൊരു തണുപ്പ് എന്നല്ല ആ അന്തരീക്ഷം എപ്പോഴും തണുത്ത് നിൽക്കണം അപ്പം നമ്മൾ ചെല്ലുമ്പോഴും ആ മുറ്റത്ത് കൂടി നമ്മുടെ പുഴയിങ്ങനെ ഒഴുകിയൊഴുകി പോകുമ്പം അവിടെ പോയിരിക്കാനും ആ സമയത്ത് ആ നല്ല ക്ലൈമറ്റിൽ കുറച്ച് മീനുകളോടിക്കളിക്കുന്നത് കാണാനും നമ്മുടെ അങ്ങനെയുള്ള കുറച്ച് ക്ലൈമറ്റ് ഒക്കെ ചൂസൻ ചെയ്തിട്ടായിരിക്കും ഞാനെപ്പോഴും ഒരു സ്ഥലം പ്രിഫറ് ചെയ്യാറുള്ളത് അതുപോലെ നമുക്ക് എനിക്ക് പോവാൻ ഇഷ്ടമുള്ള ചില സ്ഥലങ്ങൾ അവിടെയൊക്കെ സൂര്യോദയം അവിടുത്തെയൊക്കെ സൂര്യോദയങ്ങൾ സൂര്യാസ്തമയമൊക്കെ കാണാനും എനിക്ക് ഭയങ്കര താൽപ്പര്യമാണ് നമ്മൾക്കെപ്പോഴും ഞാനെപ്പോഴും പ്രിഫറ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തോന്നുന്ന നമുക്ക് ചില കാര്യങ്ങൾ ചില ഘടകങ്ങളൊക്കെ നോക്കി വേണം ഇതു കണക്ക് യാത്ര പോവാനെന്നാണ് ഞാൻ പറയാറുള്ളത് എനിക്ക് ഇതു കണക്ക് എപ്പോഴും പുഴയും പൂക്കളും വനവും ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കാറ് വനപ്രദേശങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഭയങ്കര ആ മലയും കുന്നും കാടും പോലെയൊക്കെ ഉള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അതിൻ്റെ ഇടയിലൂടെയൊക്കെ പോവാനും കുഞ്ഞ് കുഞ്ഞ് ചെടി കുഞ്ഞ് കുഞ്ഞ് മൃഗങ്ങളെയൊക്കെ കാണാനുമൊക്കെ നമുക്കൊരു വൈൽഡ് ആയിട്ടുള്ള ആനിമൽസ് അല്ല അല്ലാത്ത തന്നെ കുഞ്ഞ് കുഞ്ഞ് മൃഗങ്ങൾ ഒക്കെ നമക്കട ചുറ്റും ഇങ്ങനെ പോകുന്നത് കാണാനും അത് ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ് നമുക്കതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ മഴപെയ്യുന്നത് സമയവും നല്ല തണുത്ത ക്ലൈമറ്റ് അതുപോലെ തന്നെ മഞ്ഞ് മൂടിയയിടങ്ങൾ പിന്നെ ചില ചില സ്ഥലങ്ങളിൾ സൂര്യാസ്തമയം സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ പ്രിയപ്പെട്ടതാണെനിക്കെപ്പോഴും കായൽ പുഴ എപ്പോഴും വെള്ളത്തോട് ഞാൻ കൂടുതൽ അറ്റാച്ചിഡായിട്ടാണ് അപ്പം എനിക്കൊരുപാട് വെള്ളമുള്ള സ്ഥലങ്ങൾ കാണാനും അവിടെയൊക്കെ പോവാനും ഞാനൊരുപാട് ശ്രമിക്കാറുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെപ്പോഴും യാത്ര ഒരു നല്ല റിലീഫ് കിട്ടുന്ന സാധനമാണ് നമുക്കെപ്പോഴും യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് നമ്മുടെ എല്ലാ ദുഖങ്ങളും എല്ലാം നമുക്ക് മറക്കാൻ കഴിയുന്ന സമയമാണ് യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ കാണാനും പഠിക്കാനും കഴിയും ആ സമയങ്ങളിലാണ് നമുക്കൊരുപാട് നമ്മൾ തന്നെ നമ്മളെ മറക്കും അന്നേരം നമ്മൾ കുറച്ച് റീലീഫാകും അപ്പോൾ നമുക്കെന്താണ് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാൻ നമ്മളെപ്പോഴും ഭയങ്കര ചൂസിയായിരിക്കണം എന്നു പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ കുറച്ച് ഘടകങ്ങൾ നോക്കി തന്നെ വേണം നമ്മുടെ സ്ഥലങ്ങളിൽ പോകാനെന്നാണ് ഞാനെപ്പോഴും പ്രിഫറ് ചെയ്യാറുള്ളത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ കഴിയും പൈസയുണ്ടങ്കിൽ നമുക്കെവിടെ വേണമെങ്കിലും പോകാം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷവും എല്ലാം നമുക്ക് ലഭിക്കും എങ്കിൽപ്പോലും നമ്മൾ പോകുമ്പം പല സ്ഥലങ്ങളും നോക്കിയും കണ്ടും പോകണമെന്നാണ് അതുപോലെ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം അങ്ങനെ പോകുമ്പോൾ ഞാൻ ചൂസൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതു കണക്ക് പുഴയും മഴയും തണുപ്പും പിന്നെ എന്താ പറയുക ഈ കാർമേഘം കൂടി നിൽക്കുന്നതും മഞ്ഞ് തണുപ്പും മഞ്ഞ് മൂടിയതും മരങ്ങളും പുഴകളും പൂക്കളും എല്ലാം നിറഞ്ഞൊരു പ്രകൃതി തന്നെ എനിക്ക് ആസ്വദിക്കാൻ കഴിയണം നല്ല പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന കണക്കുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞാൻ കൂടുതൽ പോവാൻ താൽപ്പര്യം കാണുന്നത് എപ്പോഴും പ്രകൃതിയിൽ തട്ടി മുട്ടി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനാണെനിക്കിഷ്ടം ഓരോ കുഞ്ഞ് പ്രാണിയും മുതൽ സംരക്ഷിച്ചും അവരുടെ കാര്യം നോക്കിയും അങ്ങനെ അങ്ങനെ ജീവിക്കുന്നതിലാണ് ഞാനെൻ്റെ സന്തോഷം കണ്ടെത്തുക നമ്മുടെ സന്തോഷം നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് കിട്ടും ആ യാത്ര ചെയ്യുമ്പം ഉള്ള സന്തോഷം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അതിന് വേണ്ടി നമുക്ക് ഇത് കണക്ക് കുറച്ച് സ്ഥലങ്ങൾ ചൂസ് ചെയ്യേണ്ടിവരും അപ്പം നമ്മൾ ചെയ്യേണ്ട ഇങ്ങനെ കുറച്ച് ഘടകങ്ങൾ നോക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും